മലയാളഭാഷയുടെ വ്യാകരണവും ഉച്ഛാരണവും പോലെയുള്ള സവിശേഷതകളെക്കുറിച്ച് എനിക്ക് വലുതായിട്ട് അറിയില്ല പക്ഷേ മലയാളം ഒരു ശ്രേഷ്ഠ ഭാഷയാണെന്നെനിക്കറിയാം അപ്പം ആ ഒരു ശ്രേഷ്ഠത വന്നത് പണ്ട് ഈ കവികളൊക്കെ പറഞ്ഞകണക്ക് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്ത്യന് പെറ്റമ്മ തൻ ഭാഷതാൻ അപ്പോൾ സ്വന്തം ഭാഷ ഒരാൾക്ക് വലുത് തന്നെയാണ് അപ്പം എന്നെ സംബന്ധിച്ച് മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത പേഴ്സണലായിട്ട് എൻ്റെ മാതൃഭാഷയാണ് അതാണെനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ കാര്യമായി വ്യാകരണവും ഉച്ഛാരണവും പോലെ അതിനെ കുറിച്ച് ആധികാരികമായി പറയാനുള്ള അറിവ് എനിക്കില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് അത് എൻ്റെ മാതൃഭാഷ ആയതാണ് എനിക്ക് അതിനെക്കുറിച്ചുള്ള വലിയ സവിശേഷതയായിട്ട് തോന്നിയിട്ടുള്ളത്